ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ മാം പ്രിയ മാഡം ആണോ ആ ഡോക്ടറെ എനിക്ക് കുറച്ച് ജലദോഷം പനി തലവേദന എല്ലാം ഉണ്ട് അപ്പോൾ ഡോക്ടറ് ആ എൻ്റെ പേര് രമ്യ ഞാൻ കാസർഗോഡു നിന്ന് ആണ് വിളിക്കുന്നത് ആ എനിക്ക് കുറച്ച് തലവേദന പനി ജലദോഷം എല്ലാം ഉണ്ട് അപ്പോൾ ഡോക്ടറെ കാണാൻ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ട് മൂന്ന് ദിവസം ആയി അപ്പോൾ കുറയുന്നുണ്ടോ നോക്കാം എന്ന് ഓർത്താണ് അപ്പോൾ കുറവില്ല ആ ആ പുറത്ത് പോയിട്ട് വന്ന് വീട്ടിൽ ഉണ്ട് രണ്ട് പേർക്ക് ഉണ്ടായിരുന്നു കുറഞ്ഞു അപ്പോൾ അതിന് ശേഷം എനിക്കിപ്പോൾ തുടങ്ങിയത് ആ കുറച്ച് ഇങ്ങനെ തലകറക്കം ഛർദിൽ എല്ലാം ഉണ്ട് ജലദോഷം തലവേദന ആ ആ ആ ആ ആ ആ ഇല്ല മുമ്പ് ടെസ്റ്റ് ചെയ്തത് ഇല്ല ആ ആ ആ ഓക്കെ ആ ആ ഓക്കെ